ഹലോ മാഡം ഞാൻ ഒരു പ്രൊഡക്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിട്ടേൺ അത് ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട് അതിൻ്റെ റീഫണ്ട് എനിക്ക് എൻ്റെ ആപ്പിലെ വാലറ്റിലേക്കല്ല വേണ്ടത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് അഞ്ച് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് രണ്ട് ഇതാണ് ഐ എഫ് എസ് സി കോഡ് മൂന്ന് എട്ട് നാല് ഏഴ് ആറ് ഏഴ് രണ്ട് ഇതിലേക്ക് ആ അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരണം ഏകദേശം എത്ര ദിവസം കൊണ്ട് കിട്ടും ഓക്കെ മാം താങ്ക് യു